എൻ്റെ കൂട്ടാൻ ഉദ്ദേശിച്ചത് പോലെ ശരിയായില്ലെങ്കിൽ സാമ്പാറാണ് ഞാൻ വെക്കുന്നതെങ്കിൽ സാമ്പാറിന് പുളി ഇച്ചിരി കൂടിപ്പോയാൽ ഞാനതിൽ ഇച്ചിരി ഉപ്പ് ഇച്ചിരി കൂട്ടിയിട്ട് അതിൻ്റെ ആ പുളിയുടെ ഇത് മാറ്റി അങ്ങനെ ഞാനാ സാമ്പാറ് ശരിയാക്കി എടുക്കും അതല്ല തോരനാണ് വെക്കുന്നെങ്കിൽ തോരത്തിനെന്തെങ്കിലും ഇത് ഇച്ചിരി എരിവ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും വരുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിനകത്തേക്ക് ഇച്ചിരി കൂടി സവോളയോ എന്തെങ്കിലും ചേർത്ത് അതും ഇച്ചിരി നന്നാക്കി എടുക്കും അതുപോലെ തന്നെ ഇറച്ചി കറിയാ വെക്കുന്നതെങ്കിൽ ഇറച്ചിക്ക് ഇച്ചിരി മസാലയൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇച്ചിരി പിന്നെ ഉള്ളി സവോള ഇച്ചിരി കൂടുതലായി അരിഞ്ഞ് ഇട്ട് ഇച്ചിരി തേങ്ങാ കൊത്തൊക്കെ ഇട്ട് അതും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അത് നന്നാക്കി എടുത്തിട്ട് വിളമ്പി കൊടുക്കുമ്പോൾ ആരും അതിനെ ഇത് പറയാത്ത രീതിയിൽ ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ എരിവ് അഥവാ കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിനകത്തേക്ക് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയാ എന്തെങ്കിലും ഒഴിച്ച് ആ എരിവും മാറ്റി നല്ല രീതിയിലാക്കി കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ മെഴുക്ക് പുരട്ടി മെഴുക്ക് പുരട്ടിക്കൊക്കെ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനകത്തും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻറ്റ്സൊക്കെ ചേർത്ത് അത് അതിൻറ്റേതായ രീതിയിൽ ഞാൻ വിളമ്പുമ്പോഴത്തേക്കും ഒരു ഇത് പറയാത്ത രീതിയിലാക്കി കൊടുക്കാറുണ്ട് പുളിശ്ശേരി ആണ് വെക്കുന്നെങ്കിൽ പുളിശ്ശേരിക്ക് ഇച്ചിരി പുളി കൂടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇച്ചിരി ഇച്ചിരി പഞ്ചസാരയൊക്കെയിട്ട് ഇച്ചിരി മധുരം കൂട്ടിയെടുക്കുമ്പോഴത്തേയ്ക്കും അതിൻ്റെ ആ പുളിയൊക്കെ മാറി അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്